മുടിയുടെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ ചെയ്തുവരുന്നത് ഒന്നാമത് ചെമ്പരത്തിയില ചെമ്പരത്തിയില അരച്ച് തലയിൽ തേയ്ക്കുന്നത് മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കും രണ്ടാമത് താളി താളി ചെടി താളിച്ചെടിയുടെ ഇല അരച്ച് തലയിൽ തേച്ചാൽ തലയ്ക്ക് നല്ല കുളിർമ്മ കിട്ടും പിന്നെ താരൻ മുതലായവ മുതലായ രോഗങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കും ചർമ്മത്തിന് ആണെങ്കിൽ മഞ്ഞൾ ഉരച്ച് തേയ്ക്കുക മഞ്ഞള് ഉരച്ച് തേയ്ക്കുന്നതിലൂടെ ചർമ്മത്തിനൊരു തിളക്കവും നല്ല നിറവും വരും പിന്നെ ചെറുപയറ് പൊടി ചെറുപയറ് പൊടി പൊടിച്ച് ചെറുപയർ പൊടിച്ച് തേയ്ക്കുന്നത് ശരീര ചർമ്മത്തിൻ്റെ നല്ല ആരോഗ്യവും നല്ല തിളക്കവും വരാൻ സഹായിക്കും പിന്നെ അടുത്തത് എന്താന്ന് വച്ചുകഴിഞ്ഞാൽ തൈര് മുട്ട പാല് എന്നിവ മിക്സ് ചെയ്ത് തലയിൽ തേയ്ക്കുന്നതാണ് അതും മുടി നന്നായിട്ട് വളരാൻ വേണ്ടി സഹായിക്കുന്ന സാധനങ്ങളാണ് പിന്നെ ചർമ്മത്തിന് നല്ല എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മത്തിന് നല്ലൊരു നിറം നൽകാനും സഹായിക്കും പിന്നെ ചർമ്മത്തിലടിഞ്ഞ് കൂടിയിരിക്കുന്ന അഴുക്കുകള് കറുത്ത പുള്ളികള് മുതലായ കാര്യങ്ങളെ നീക്കം ചെയ്യാനും ഇത് വളരെ സഹായിക്കും അത് ആ ഒരു ആവി പിടിച്ചതിന് ശേഷം ആണ് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ച് പിന്നെ കുളിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അടുത്തതായിട്ട് മുടിയുടെയും ചർമ്മത്തിൻ്റെയും സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം അരച്ച് തേയ്ക്കുന്നതാണ് ചന്ദനം അരച്ച് തേയ്ക്കുന്നതിലൂടെ ശരീരത്തിന് നല്ല തണുപ്പും മുടി നല്ലോണം കിളിർത്ത് വളരുന്നതിനും സഹായിക്കും മാത്രമല്ല ചന്ദനം ചർമ്മ രോഗങ്ങളെയും പ്രതിരോധിക്കും